ഹലോ ഞാൻ അഭിഷേക് ആയിരുന്നു ഞാൻ പാലക്കാടുനിന്ന് വിളിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ വയനാട്ടിൽ വരുന്നുണ്ട് അപ്പം ആ റെസ്റ്റോറന്റിന്റെ ട്രഡീഷണൽ ഫുഡ്സിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ആ

ഫംഗ്ഷൻ അല്ല ഞങ്ങൾ നാലഞ്ച് പേർ ട്രാവൽന്റെ ഭാഗമായിട്ട് വരുന്നതാണ് രണ്ട് കഴിയുമ്പോൾ അഞ്ചാം തീയതി ഒരാഴ്ച

ഞങ്ങൾക്ക് ബ്രേക്ഫാസ്റ്റും സപ്പറും മാത്രം മതി

ആ ഉണ്ട്

ആ ഓക്കെ ആ പറയാം ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ പറയാം